എൻ്റെ പക്കലുള്ള നെയ്ത് തുന്നൽ നെയ്തുവായിട്ട് എനിക്ക് ബന്ധവില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മുന്നിലുള്ള എൻ്റെ ഉപകരണങ്ങൾ തയ്യൽ മെഷീനും സൂചി നൂലുകൾ പിന്നെ അഡീഷണൽ വർക്കിനുള്ള ത്രെഡുകൾ പിന്നെ സർദോസി അങ്ങനെ ടൂബുകൾ അല്ലെങ്കിൽ ബീഡ്സ് ഇ ക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രധാനം തയ്യൽ തന്നെയാണ് തയ്യലിൻ്റെ ഡെക്കറേഷൻ വരുത്താൻ വേണ്ടി ചില ഷോ ബട്ടണുകൾ ലെയ്സുകൾ അതൊക്കെ ഉപയോഗിക്കും അത്രയേ ഉള്ളു പിന്നെ അത്യാവിശ്യമാണെന്ന് വന്നാൽ ലേഡീസിൻ്റെ മൈൻലി ലേഡീസ് തന്നെ ലേഡീസിൻ്റെ ബ്ലൗസിനും അങ്ങനെയുള്ള ചുരിദാറിനും വർക്കിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഫിറ്റിങ്സൊക്കെ വച്ച് ഭംഗിയാക്കും അതൊക്കെയാണ് എൻ്റെ കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇമ്പ്രെസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്യും എംബ്രോയിഡറി എനിക്ക് നല്ല വശമുള്ളതല്ല എന്നാൽ തന്നെ എൻ്റെ ഹാൻഡ്വർക്കിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ബീഡ്സ് വർക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചെയ്താണ് അത് ആൾക്കാർക്ക് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്